വയനാട് ജില്ലയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് മഴ തന്നെയാണ് മൺസൂൺ കാലാവസ്ഥയാണ് അതെന്ന് പറയുമ്പോള് ഒരു ജൂൺ മുതൽ ജൂൺ മുതൽ അവസാനമോ ഒരു നവംബറോ അല്ലെങ്കില് ഒക്റ്റോബറോ ഒക്റ്റോബർ നവംബർ ആ ഒരു കാലഘട്ടത്തെ മൺസൂൺ കാലഘട്ടം വടക്കുകിഴക്കൻ മൺസൂൺ കാലമെന്ന് പറയും അതുപോലെ ഡിസംബർ മുതല് അല്ലെങ്കില് നവമ്പര് ലാസ്റ്റ് മുതല് ഫെബ്രുവരി വരെയൊക്കെ ഒരു കാലാവസ്ഥ തണുത്ത ശീത കാലാവസ്ഥയാണ് അതുപോലെ ആദ്യമൊരു ഒരു ഫെബ്രുവരി തൊട്ടൊരു മാർച്ച് ഏപ്രിൽ മേയ് മാസങ്ങളൊക്കെ ഭയങ്കരം കഠിന ചൂടുകാലാണ് അപ്പോള് ഇങ്ങനെയാണ് കാലാവസ്ഥ പിന്നെ അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കാലാവസ്ഥയെങ്ങനെ ബാധിക്കുമെന്നുവെച്ചാല് നമുക്ക് ചൂട് സമയത്ത് ഭയങ്കരം ചൂടായിരിക്കും ഭയങ്കരം വരൾച്ചയായിരിക്കും അതുകൊണ്ടുതന്നെ വെള്ളം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട് ചൂട് സഹിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ക്ഷീണം ഒരു ജോലിയും ചെയ്യാന് പറ്റാതെയായിട്ടുള്ളൊരു അവസ്ഥയാണ് വരുന്നത് എന്നാല് തണുത്ത കാലാവസ്ഥയെന്ന് പറയുമ്പോള് നമുക്കൊരിഷ്ടമാണ് പക്ഷേയെങ്കില് നമുക്ക് പുറത്തിറങ്ങാനും കുളിക്കാനുമൊക്കെ ഭയങ്കരം മടിയായിരിക്കും പക്ഷേ പുതപ്പിനുള്ളില്ത്തന്നെ ഇരിക്കാനായിരിക്കും നല്ല ഇഷ്ടം മഴക്കാലമെന്ന് പറഞ്ഞാല് ഒരുപാട് നാശനഷ്ടവും പ്രളയവുമൊക്കെയുണ്ടാകുന്ന കാലഘട്ടമാണിപ്പോള് ഇപ്പോയിപ്പോള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെള്ളപ്പൊക്കവും നാശനഷ്ടവും ശരിക്കും ഈ മഴക്കാലം തന്നെയാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഒരുപാട് നാശനഷ്ടങ്ങളും കൃഷിനാശങ്ങളും അതൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാലാവസ്ഥയെന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ് ഒരു ചെറിയ ഒരു തണുത്ത കാലങ്ങളിലൊക്കെ ഒരുച്ച സമയമാകുമ്പോള് നമുക്കുമൊരു നല്ലൊരു സുഖമായിരിക്കും ചൂടും തണുപ്പുമല്ലാത്തൊരു കാലാവസ്ഥ പക്ഷേ ചൂടും മഴയും നമുക്ക് അതിജീവിക്കാൻ ഭയങ്കരം ബുദ്ധിമുട്ടാണ് മഴക്കാലങ്ങളില് സ്കൂളുകളില് പോകുന്നതും ഒരുപാട് ബുദ്ധിമുട്ടാണ്